എൻ്റെ സംസ്ഥാനത്ത് പ്രധനമായിട്ടും ആധരിക്കുന്ന ആദരിക്കപ്പെടുന്ന മതനേതാക്കൾ ആയിട്ട് അങ്ങനെ ആരും തന്നെ ഇല്ല പക്ഷെ പ്രധാനമായിട്ടും ആദരിക്കുന്നത് രാഷ്ട്രിയക്കാരെയാണ് കാരണം അവരാണല്ലോ നമുക്ക് വേണ്ടി റോഡുകളും പിന്നെ അടിസ്ഥാന സൗകര്യങ്ങളും ഗതാഗതം അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി തരുന്നത്ത് അതുകൊണ്ട് ജനങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയക്കാർ ഉണ്ടാകും ഓരോ ആൾക്കാർ ഉണ്ടാക്കും ഇപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ ഇഷ്ടംപോലെ ആൾക്കാർ ഉണ്ട് ഉമ്മൻ ചാണ്ടി ഇപ്പോൾ പിണറായി വിജയൻ അച്യുതാനന്ദൻ അങ്ങനെ കുറേപ്പേരുണ്ട് ഇതിൽ അവരോക്കെ എന്ന് വെച്ചാൽ അവരൊക്കെ സ്വന്തം കാര്യങ്ങൾക്കും പകരമായിട്ട് നമ്മുടെ ജനങ്ങളുടെ നന്മയും അവരുടെ സേവനവും അവരുടെ കാര്യക്ഷമത ഒക്കെ ചോദിച്ച് മനസ്സിലാക്കി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ജനങ്ങളുടെ നേതാവായിട്ടാണ് അവരെ എല്ലാവരും അംഗീകരിക്കൽ കാരണം അവർ രാഷ്ട്രീയത്തിൽ കയറണം അഴിമതിയേകാൾ ഓരോ രാഷ്ട്രീയക്കാരും രാഷ്ട്രീയത്തിൽ എത്തുന്നത് അഴിമതി നടത്താൻ വേണ്ടിയാണ് പക്ഷെ ഇവരൊക്കെ എന്ന് പറയുന്നത് ഇവരൊക്കെ ജനങ്ങൾക്ക് വേണ്ടി രാഷ്രിയത്തിലെത്തി ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച് ജനങ്ങൾക്ക് വേണ്ടി കാല കാലാവധി പൂർത്തിയാക്കിയ ജനങ്ങളുടെ നേതാക്കളാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ മനസ്സിൽ ഇവർക്കെല്ലാം വളരെ വലിയ സ്ഥാനമാണ് ഉള്ളത്